അഞ്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരം മൂന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പത്ത് അഞ്ച് രണ്ടായിരത്തി അഞ്ച്